അതെ ഇതാരാ വിളിക്കുന്നത് പേരും വയസും ഒന്ന് മെൻഷൻ ചെയ്യാമോ ആ ഒക്കെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ആ ഫിഫ്റ്റി ത്രീ ഫോർ എയിറ്റ് വൺ സിക്സ് നയൻ ടു ഫോർ ഏത് ഡോക്ടറെയാണ് എപ്പോഴും കാണാറ് ആണോ ആ ഇതിപ്പം ഓ പ്പി ക്ക് ആണോ ആ എൻക്വയറി പറയാമോ

ആ ഇതിപ്പം സിംറ്റംസ് തുടങ്ങിയിട്ട് എത്ര ദിവസം ആയി ടൂ മന്ത്സ് ആയി ഇതിന് മുൻപ് എപ്പോഴാണ് നമ്മളുടെ ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ചത് ആണോ വിറ്റമിൻ ഡി ക്യാപ്സ്യൂൾസ് റെക്കമെൻറ് ചെയ്തിട്ടുണ്ടായിരുന്നോ അന്ന് ബ്ലഡ് ടെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല ഓക്കെ അപ്പം ഇതിപ്പം നമുക്ക് നേരെ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് എന്തായാലും അറ്റ് ദ ഏർളിയെസ്റ്റ് ഹോസ്പിറ്റലിൽ വരുക എന്നിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാനുണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് പണ്ട് റെക്കമെൻറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി പിന്നെ ഇതല്ലാതെ ജലദോഷം തലവേദന നടുവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാം പീരീഡ്സ് ഇറെഗുലാരിറ്റിക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നോ

അത് അങ്ങനെ വരാൻ വഴിയില്ല എന്നാലും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം പഴയ റിപ്പോർട്ട്സ് ഒക്കെയായിട്ട് വരണം കേട്ടോ പിന്നെ കൺസൾട്ടേഷൻ ഫീസ് ആകും അതൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇവിടെ രജിസ്റ്റർ രജിസ്ട്രഷേൻ ഓഫീസിൽ അടക്കുക അതുകഴിഞ്ഞിട്ട് ഡോക്ടറിനെ കാണാം അപ്പോൾ ഡോക്ടറുടെ ടൈമിംഗ് എന്ന് പറയുമ്പം രാവിലെ പത്ത് തൊട്ട് ഒരു മണിവരെയാണ് ഉച്ചക്ക് ഒരുമണിവരെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഇപ്പം അവൈലബിൾ അല്ല ഇപ്പം ഇവിടെ സ്റ്റാഫ് കുറച്ച് കുറവ് ആയതുകൊണ്ട് ഇപ്പോൾ അവൈലബിൾ അല്ല ആൻസി എന്തായാലും വന്ന് നോക്കൂ ശരി അപ്പം